ഞാനൊരു ഷോപ്പിംങ് ചാനലിൽ നിന്നാണ് ഞാൻ ജീൻസ് ആണ് ഓർഡർ ചെയ്തത് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് വിലയും കുറവായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഓർഡർ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാനത് വില കമ്മിയായതു കൊണ്ട് ഓർഡർ ചെയ്തു ചെയ്തവർ മാക്സിമം ഒരാഴ്ചേൻ്റെ മേലെയാണ് അവർ എടുക്കുക ഇത് നാലഞ്ച് ദിവസമാകുമ്പോഴേക്കും അവർ കൊണ്ട് വന്നു കൊണ്ട് വന്ന് എന്താണ് നല്ല കൊ നന്നായിത്തന്നെ അവരെ കൊണ്ട് വന്നൊക്കെ തന്നത് കോറിയർ ബോയ് കൊണ്ടുവരികയൊക്കെ ചെയ്തു നല്ല രീതിക്ക് ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് കൊണ്ടു തന്നു ഞാൻ അത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത് എടുത്തപ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ എന്താണ് ഓർഡർ ചെയ്ത അതുതന്നെയായിരുന്നു കളറാണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും നല്ല ഇതായിരുന്നു നമ്മളതിൽ ഓർഡർ ചെയ്തതു കൊണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടാകും എന്നൊരു ടെൻഷൻ നമ്മൾ തൊട്ടൊന്നും നോക്കാതെ എടുക്കണ കൊണ്ട് നമുക്ക് കാണാതെയൊക്കെ എടുക്കണ കൊണ്ട് ഒരിത് ഉണ്ടായിരുന്നു പക്ഷെ അത് എടുത്ത് കൊണ്ട് വന്നപ്പോൾ നല്ല കട്ടിയൊക്കെ ഉള്ള ജീൻസും നല്ല കളറായിരുന്നു നല്ല ക്വാളിറ്റിയായിരുന്നു പിന്നെ ഓർഡർ ഒരു അർജൻറ് ഒന്നുമില്ലായിരുന്നു ഓർഡർ ചെയ്തപ്പോൾ പക്ഷെ അവർ ആ എന്താണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കൊണ്ട് വന്നത് നന്നായി ആ ഓർഡർ ചെയ്ത ആ ടൈമിൽ തന്നെ കിട്ടിയത് നന്നായി പിന്നെ എന്താണ് ഓർഡർ ചെയ്ത ആ ബോയ് ആണെങ്കിൽ അവർ നല്ല രീതിക്ക് വിളിച്ച് എല്ലാ അഡ്രസ്സൊക്കെ ചോദിച്ച് പെട്ടെന്ന് തരികയൊക്കെ ചെയ്തു ചെയ്തതു കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ഞാനത് വെളിയിലേക്ക് ഇട്ടിട്ട് പോയപ്പോഴും എല്ലാവരും നല്ലരീതിക്ക് തന്നെയാണ് കാ ചോദിച്ചതൊക്കെ ഇതെവിടുന്നാണ് ഇത്ര വിലയെ ഉള്ളോ നല്ല തുണിയാണ് നല്ല ക്ലോത്താണ് എവിടെ നിന്നാണ് വാങ്ങിയത് അവർക്കും വാങ്ങണമെന്ന് ഉണ്ടായിരുന്നുവെന്നൊക്കെ കുറെ പേർ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഓർഡർ ചെയ്തിരുന്ന എനിക്ക് ഓർഡർ ചെയ്തതിൽ വെച്ച് നല്ലൊരു ഇതാണ് എനിക്ക് കിട്ടിയത് നല്ലൊരു കടയിൽ പോയി എടുക്കുന്നതിൽ വെച്ച് എനിക്ക് നല്ലൊരു കംഫർട്ടബിൾ കിട്ടി ഇതെടുത്തപ്പോൾ അത്ര നല്ലൊരു പ്രോഡക്റ്റായിരുന്നു ഇനി ഇനിയും വാങ്ങാൻ വേണ്ടി തോന്നി അതിൽ നിന്ന് എടുത്തപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ജീൻസ് തന്നെയാണ് ഞാൻ എടുത്തത് അപ്പൊൾ എല്ലാവരും നന്നായിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഇനി എന്തും ഓർഡർ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസും വന്നു നല്ല ജീൻസ് ആയിരുന്നു എനിക്ക് എന്റെ ഫ്രണ്ട്സ് അതു കണ്ട് ഓർഡർ ചെയ്യ അടക്കം ചെയ്തു അവർക്ക് ആദ്യമൊരു ഇതുണ്ടായിരുന്നില്ല ഒരു കോൺഫിഡൻറ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനത് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ നല്ല കോൺഫിഡൻസൊക്കെ ആയവർക്ക് എന്താണ് ഓർഡർ ചെയ്തതിലും വെച്ചിട്ട് നമുക്ക് കുറച്ച് സംതൃപ്തി കിട്ടി പൈസ കൊണ്ട് വളരെ കുറവായിരുന്നു നല്ല രീതിക്കുള്ള ക്വാളിറ്റിയിൽ കിട്ടിയപ്പോൾ അതിൽ വെച്ച് നന്നായിരുന്നു അപ്പോൾ ആ ഓർഡർ ചെയ്ത ആ ഓർഡർ നല്ല പ്രോഡക്ട് തന്നവരോടാണ് നന്ദി പറയുന്നു